ഇപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ എൻ്റെ പ്രദേശത്തുള്ളതിൽ വ്യത്യസ്തമായ കലാരൂപങ്ങൾ എന്നൊക്കെ പറയാനാണെങ്കിൽ തെയ്യംതറ അങ്ങനത്തെയൊക്കെയാണ് കൂടുതലും നമ്മൾ കണ്ട് വരുന്നത് കാരണം അമ്പലങ്ങളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള കലാരൂപങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് മറ്റേ എന്താ പറയാ മറ്റേ സ്ഥലങ്ങളിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ രീതിയിലുള്ള തറകളും കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ കാണുന്നത് കാരണം അവരുടെ ആചാര രീതികൾ നമ്മുടെ രീതികളൊക്കെ ഒരുപാട് വ്യത്യാസമുള്ളതു കൊണ്ടുത്തന്നെ അതുമിതുമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പിന്നെ വേറെന്നൊക്കെ പറയാനാണേ ആദിവാസി വിഭ വിഭാ വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ അവരുടേതായ രീതിയിൽ ചെ വേറെ രീതിയിലുള്ള ആചാരങ്ങളും എന്താ പറയാ അവരുടെ കലകളും അങ്ങനുള്ള ല സാധനങ്ങളൊക്കെ കൊണ്ടു വരുന്നുണ്ട് അപ്പോൾ അവരവരുടെ കരകരാ കര കല കരകൗശല വസ്തുക്കൾ അതൊക്കെ നല്ല രീതിക്കുതന്നെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം താഴ്ന്ന ജാതിയിലുള്ളവരെയൊക്കെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടീട്ട് സർക്കാർ ഒരുപാട് പ്ര എന്താ പറയാ കാര്യങ്ങൾ കൊണ്ടുവരുന്നതോടുകൂടി അപ്പം അവരുടെ ആചാരങ്ങളും കരകൗശല വസ്തുക്കളും കലകളുമെല്ലാം പുറമെ ഉള്ളവരുമായിട്ട് കമ്മ്യൂണികേറ്റ് ചെയ്യാനും അറിയിക്കാനൊക്കെ സാധിക്കുന്നുണ്ട് അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നൊരു കാര്യമാണ്